ഹലോ ആ ആ പറഞ്ഞോ അതെ അതെ അതെ അതെ അതെ പറഞ്ഞോ പറഞ്ഞോ എന്താണ് രണ്ട് ബോട്ടിൽ വെള്ളം ജാറ് രണ്ട് ജാറ് അല്ലേ ആ അയ്യോ ഞങ്ങൾ പിന്നേ ഇന്നലെ അവിടെ ഡെലിവറി കഴിഞ്ഞതാണല്ലോ ഇനി നമ്മൾ രണ്ട് ദിവസം കഴിയിമ്പോഴേ വരുള്ളൂ ഇല്ല ഇല്ല കാരണം നമുക്ക് ബറ്റ് ഇല്ല അത് നമുക്ക് പല സ്ഥലങ്ങളിലും റൂട്ട് പോവേണ്ടതാണ് കാരണം ഇന്നലെ ആയിരുന്നു നിങ്ങളുടെ മായം ഭാഗത്തേയ്ക്കുള്ള റൂട്ട് ഇന്നലെയായിരുന്നു ഡേറ്റ് ഇനി അടുത്ത രണ്ടു ദിവസം കഴിഞ്ഞെ നമുക്ക് വരാൻ പറ്റുള്ളു അല്ലെങ്കിൽ പിന്നേ മറ്റൊരു ഓപ്ഷനും ഇല്ല നിങ്ങളത് ഒരു ദിവസം മുമ്പ് വിളിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് വന്ന് ഇന്നലെ വന്നപ്പോൾ അവിടെ ഡെലിവറി ചെയ്യാമായിരുന്നു ആ അല്ല ഇന്നലേ ഞങ്ങളവിടെ വന്നൂ നിങ്ങളെല്ലാ മാസവും എല്ലാം ആഴ്ച്ചയിലും എടുക്കുന്നതാണ് നമുക്കറിയാം അതുകൊണ്ട് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്നപ്പോൾ അവിടെ ആരുമില്ലായിരിന്നു അപ്പോൾ വെള്ളം ആവശ്യമില്ലായെന്ന് കരിതിയാണ് ഞങ്ങൾ പിന്നെ പോന്നത് ഇനിയിപ്പോൾ ഇനി ഒരു സാധ്യതയില്ല കാരണം നമുക്കിപ്പോൾ ഈ ഒന്നാമതേ ഇപ്പം വേനൽക്കാലമാണ് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് അപ്പം എല്ലാ റൂട്ടിലും നമ്മൾ കൃത്യമായിട്ട് പോയില്ലെങ്കിൽ അവിടെ നിന്ന് പരാതികൾ വരും അത് നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ വലിയ ബുദ്ധിമുട്ടാണ് പരാതികൾ വരുമ്പം പിന്നെ നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്ത്വം ഈ ഡെലിവറി ചെയ്യുന്ന ഞങ്ങളുടെ പേരിൽ ആണ് ഡെലിവറി ചെയ്യുന്ന ആളിൻ്റെ പേരിലാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് കൃത്യസമയത്ത് നമ്മൾ ആ റൂട്ടുകളിൽ നേരത്തെ പറഞ്ഞ ആ റൂട്ടുകളിൽ പോയില്ല എങ്കിൽ അവിടനിന്ന് പരാതികൾ ഓഫീസിൽ വിളിച്ചു പറയും പിന്നെ അത് വലിയ പരാതിക്കിടയാക്കും ഞങ്ങളതിന് മറുപടി പറയേണ്ടി വരും അതുകൊണ്ടാണ് ആ ആ ഓഫീസിൽ വന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ആ എടുത്തുകൊണ്ട് പോരാൻ പറ്റും പക്ഷെ നിങ്ങൾ കാട്ടാക്കട വരണം കാട്ടാക്കട വന്നു നിങ്ങൾ സാധനം എടുത്തുകൊണ്ട് പോയാലെ നടക്കുകയുള്ളു അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ വന്നാൽ മതി ഓഫീസിൽ വന്ന് എടുത്തുകൊണ്ട് പോകാം അപ്പം നിങ്ങൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഡെലിവറി ടൈമെന്ന് ഓഫീസിലെ ഡെലിവറി ടൈം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ വരണം ഉച്ചയ്ക്ക് മുമ്പ് വന്നാലെ ഡെലിവറി ടൈം കിട്ടത്തുള്ളു എന്നിട്ട് നിങ്ങൾക്കത് സാധനം കൊണ്ടുപോവാൻ പറ്റത്തുള്ളു ഉച്ചയ്ക്ക് ശേഷം റൂട്ടിൽ പോവുന്നതുകൊണ്ട് രാവിലെയാണ് ഓഫീസിലെ ഡെലിവറി ടൈം അതുകൊണ്ട് കൃത്യ സമയത്ത് എത്താനായിട്ട് നോക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് വെറുതേ യാത്ര ചെയ്തു പോവേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ ആ ശരി ശരി ഓക്കെ